എനിക്ക് കുക്കിങ്ങ് വളരെ ഇഷ്ടമാണ് അപ്പം പണ്ടൊന്നും അത്ര ഇഷ്ടം അല്ലായിരുന്നു പിന്നെപ്പിന്നെ പതിയെപ്പതിയെപ്പതിയെ എന്തോ അതിനോട് ഇഷ്ടവായി അപ്പോൾ എനിക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കോവിഡ് ടൈമില് ആണ് ഞാനതിനെ കുറിച്ച് കൂടുതല് പഠിച്ചത് അപ്പം കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങി ആദ്യം ഒക്കെ കുറെ ഒക്കെ ശെരിയായില്ല പിന്നെ പതിയെപ്പതിയെപ്പ തിയെ ശരിയായി തുടങ്ങി ഞാനിങ്ങനെ അത് ഫോട്ടോ ഇടാൻ തുടങ്ങി സ്റ്റാസ് സ്റ്റാറ്റസാക്കി ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഓരോന്നില് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഇങ്ങനേ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി നീ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആദ്യം എനിക്കിങ്ങനെ ഒര് ഫ്രെണ്ടിങ്ങനെ എനിക്ക് ഒരു ഓർഡർ തന്നു ഇങ്ങനെ അവൾ കോവിഡ് ടൈമിൽ ആയിരുന്നു അപ്പം ഷോപ്പൊന്നുവില്ലാത്തത് കൊണ്ടും നമുക്ക് അവൈലബിളിറ്റി കുറവായത് കൊണ്ടും അപ്പോൾ അവളെന്നോട് ചോദിച്ചു ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ അവർക്ക് ഒര് കേക്ക് ബർത്ഡേക്ക് കേക്കുണ്ടാക്കിക്കൊടുത്തു അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ പിന്നെ അത് മുന്നോട്ട് കൊണ്ട് പോയി കൊണ്ട് പോയി പതിയെപ്പതിയെ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ എനിക്കിങ്ങനെ ഓഡറ് തരാൻ തുടങ്ങി ചിലപ്പം ഒരുപാട് സമയമെടുക്കും ഇപ്പം ഓഡറ് കിട്ടിയാലും നമുക്കൊര് കേക്കേ കിട്ടുന്നുണ്ടെ എങ്കിലും അതിലൊരുപാട് നല്ല രീതിയിൽ സമയം എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്ഷമയോടെ എല്ലാം ചെയ്തു അത് സക്സസായി അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണേലും നല്ല സപ്പോർട്ട് ആയിരുന്നു ഞാന് ഓൾറെഡി ഒരു ഹെൽത്ത് കെയർല് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് ടൈം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ സമയം കിട്ട് കണ്ടെത്തി അത് മറ്റുള്ളവരിലേക്ക് ഞാൻ ഓർഡർ ചെയ്ത് എത്തിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് തന്നിരുന്നത് വലിയ വരുമാനം ഇല്ലെങ്കിലും ചെറിയതായ രീതീലെനിക്കതിൽ നിന്നൊര് വരുമാനം സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് വീട്ടിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു അത് പോലെ ഒരു കാര്യം കേക്കൊണ്ടാക്കാനും പഠിച്ചു പിന്നെ വീട്ടുകാർക്ക് അതൊരു സന്തോഷമായി ഏറ്റവും വലിയ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നാൽ ഒരു ഫങ്ഷൻ വന്നാലും പുറത്ത് നിന്ന് കേക്ക് വാങ്ങിക്കത്തില്ല എല്ലാം എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കും